ശബ്ദത്തിൽ ക്ഷീണവും ഇടർച്ചയൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ജലദോഷമോ പനിയോ അങ്ങനെ ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് പിന്നെ പിന്നെ ഒച്ച അടയും ഇടർച്ച ഉണ്ടാവുവൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ പൊടിക്കൈകൾ എന്ന് വെച്ചാൽ വീട്ടിൽ ചില പൊടിക്കൈകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചുക്കു കാപ്പി ഇട്ട് കുടിക്കുവോ അല്ലെങ്കിൽ പിന്നെ കൽക്കണ്ടവും പിന്നെ ചുക്കും കുരുമുളകും കൂടെ പൊടിച്ച് വെച്ച് അങ്ങനെയൊക്കെ കഴിക്കുക ഒക്കെ ചെയ്യും അല്ലാതെ ഒന്നും പൊടിക്കൈകൾ ഒന്നുമില്ല പിന്നെ നമ്മൾ വലിയ പാട്ടുകാരും വലിയ പ്രാസംഗികരും ഒന്നും അല്ല അവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തൊണ്ട തൊണ്ട കീറി സംസാരിക്കുക ഒക്കെ ചെയ്യും അപ്പം ഇടർച്ച വരാറുണ്ട് അല്ലെങ്കിൽ ഒച്ച പോവാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതിൽ അപ്പം അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ നമുക്ക് ഒരു പനിയോ ഒരു ജലദോഷമോ ഒക്കെ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒക്കെ കഴിക്കുമ്പോഴത്തെ തണുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരും അന്നേരം നമ്മൾ ഇത്തിരി ഉപ്പുവെള്ളം കൊള്ളുകയോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു പന കരിപ്പെട്ടി ഇട്ട് തിളപ്പിച്ച ചുക്കും മല്ലി ചുമന്ന ഉള്ളി എല്ലാം കൂടെ ഒക്കെ ഇടിച്ച് ഇട്ട് ഒരു കഷായം വെച്ച് അങ്ങ് കുടിക്കും അപ്പോഴത്തേനും നമ്മുടെ തൊണ്ടയുടെ പിന്നെ വേദനയും ആസ്വസ്ഥതയൊക്കെ അങ്ങ് മാറിക്കിട്ടും പെട്ടെന്ന് ഇതങ്ങ് മാറും ചെയ്യും പിന്നെ അതും അല്ലെങ്കിൽ ഒരു ഇത്തിരി വിക്സ് എടുത്ത് അത് പിന്നെ തൊണ്ടയിൽ പുരട്ടും നമ്മുടെ ഈ തൊണ്ടയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കും അതല്ലെങ്കിൽ ഇത്തിരി വല്ലതും ഒരു കൊച്ച് വിക്സ് എടുത്ത് പണ്ടൊക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്യാറില്ലേ പണ്ടൊക്കെ ആൾക്കാരൊക്കെ പറയാറില്ലേ പുട്ടുകുടത്തിനകത്ത് ഇത്തിരി വിക്സ് ഇട്ടിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ പിന്നെ പുതപ്പൊക്കെ തലയിൽ കൂടെ മൂടി ഇട്ടിട്ട് ആവി കൊള്ളും അത് നല്ല ഒരു ഇതാണ് വരാൻ പോവുന്നത് അത് ചെയ്യുവാണ് അല്ലാതെ നമ്മൾ വലിയ പിന്നെ പൊടിക്കൈകളൊന്നും അതിനകത്ത് ചെയ്യാറില്ല പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വലിയ ചികിത്സ ഒന്നും അങ്ങനെ തേടി പോവാറില്ല ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കുഞ്ഞ് പിള്ളേർ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ തൊണ്ട വേദനയൊക്കെ വരുമ്പോഴത്തേനും ഇതുപോലെ ഉപ്പിട്ട് വെള്ളം കൊള്ളാനും മുതിർന്നവർ പറയുന്നത് കേട്ട് ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ നമ്മുടെ അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു പിന്നെ പത്ത് മിനിറ്റ് വായിലിങ്ങനെ കൊണ്ടിട്ട് തുപ്പി കളയുന്ന ഒരിതുണ്ട് ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ടൈഗർ ബാമോ വിക്സോ അതൊക്കെ എടുത്ത് ആവി പിടിക്കും പിന്നെ അല്ലാതെ അല്ലാതെ വലിയ ഇംഗ്ലീഷ് മരുന്നും അങ്ങനെ ഉള്ളതൊന്നും നമ്മൾ കഴിക്കാറില്ല ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ ക്ഷീണവും തളർച്ചയും അങ്ങനെയുള്ളതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തൊണ്ടവേദന ഒക്കെ അങ്ങനെ വല്ലപ്പോഴും ജലദോഷം ഒക്കെ വരുമ്പോൾ മാത്രമേ ഇത്തിരി വേദന വരുമെന്നേ ഉള്ളൂ അല്ലാതെ ഒന്നും നേരിട്ടിട്ടില്ല അന്നേരം ഇതുപോലെയുള്ള പൊടിക്കൈകളാണ് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നത് അല്ലാതെ പിന്നെ അത് ഇത്തിരി ആവി പിടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അതങ്ങ് മാറും വീട്ടിൽ എപ്പോഴും അപ്പച്ചൻ ഇങ്ങനെ തൊണ്ടവേദന ഒക്കെ വരുമ്പോഴത്തേന് അമ്മച്ചി ഇതേപോലെ അങ്ങാടികടയിൽ നിന്ന് ഇത്തിരി കൽക്കണ്ടം ഒക്കെ മേടിച്ച് വെച്ചിരുന്ന് അതങ്ങ് പിന്നെ പൊടിച്ച് കഴിക്കുമ്പോഴത്തേന് നമുക്കങ്ങ് ആശ്വാസം വരും അതാണ് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന പിന്നെ പൊടിക്കൈ ഒക്കെ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ചെയ്യാറ്